പതിനാല് ഒൻപത് രണ്ടായിരത്തി നാല് ഏഴ് എട്ട് രണ്ടായിരത്തി മൂന്ന് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാല് നാല് രണ്ടായിരത്തി ഇരുവത്തൊന്ന് ഒമ്പത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ്